ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോൾ എനിക്ക് ഓര്മ്മ വരുന്നത് ഒരു തെയ്യക്കാലമാണ് തെയ്യം പല തരം പല തരത്തിലുള്ള തെയ്യങ്ങളാണ് ഞങ്ങളെ ഉത്സവപ്പറമ്പിൽ കാണാറുള്ളത് വീടിനടുത്തുള്ള അമ്പലത്തില് ഒരു ഉത്സവപ്പറമ്പുണ്ടാവാറുണ്ട് എല്ലാ കൊല്ലവും ഒരു ഭംഗിയാണ് കാണാൻ ഉൽസവപ്പറമ്പിലൂടെ അമ്മേൻ്റെ കൈയും പിടിച്ചു ചെറുപ്പ കാലങ്ങളിലൊക്കെ പോയത് നല്ല ഓര്മ്മ വരുന്നുണ്ട് കാരണം ഞാനും അമ്മയും കൈപിടിച്ച് പോകുന്നത് നല്ല ഒരു രസമാണ് അത് കാണാന് ഉത്സവപറമ്പില് പലതരം ചന്തകളും പലതരം കളിപ്പാട്ടങ്ങളും പലതരം ഐസ്ക്രീമുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് നല്ല രസമാണ് അത് കാണാനും രാത്രികാലങ്ങളിൽ ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ലൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകും പിന്നെ ആളുകളും ഒരാൾകൂട്ടം തന്നെ കാണാൻ ഒരു ഭംഗിയാണ് ആന പിന്നെ ആന ഉണ്ടാകാറുണ്ട് നെറ്റിപ്പട്ടം ഇട്ട ആനകൾ പിന്നെ ഉത്സവപ്പറമ്പിലൂടെ ബലൂൺ വിൽക്കാൻ വരുന്നവരും അതൊക്കെ കാണുന്നതൊരു രസമാണ് ഈ ലൈറ്റിങ്ങ്സിന്റെ ഒക്കെ ഭംഗി കാണുന്നതൊക്കെ രസമാണ് പിന്നെ ഉത്സവപ്പറമ്പിൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് വെടിക്കെട്ട് വെടിക്കെട്ട് നടത്താനുള്ള ഒരു വലിയ ഒരു ഗ്രൗണ്ട് തന്നെ ഉത്സവപ്പറമ്പിൽ കാണും അവിടെ പല നിറത്തിലുള്ള വെടികൾ ഇങ്ങനെ ആകാശത്തിലൂടെ കാണും പലതരത്തിലുള്ള കളറുകളും പലതരത്തിലുള്ള മിന്നൽ പോലെയുള്ള വെടിക്കെട്ടുകളും പിന്നെ മാലപ്പടക്കം എന്നിങ്ങനെ പല തരത്തിലുള്ള വെടികൾ നമുക്ക് കാണാം ഞാന് കുട്ടിക്കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയന്ന് ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒരു നല്ല രസം തോന്നാറുണ്ട് പണ്ടു ഞാൻ അമ്മയുടെ കയ്യും പിടിച്ച് പോകുമ്പോൾ ചന്തകളിൽ കാണുന്ന പല കളിപ്പാട്ടത്തിനും വേണ്ടി ഞാൻ കരഞ്ഞേക്കുന്നതും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ തോരണം ഒക്കെ ഒക്കെ കെട്ടി കാണുന്ന ഒരു അമ്പലം ഒരു നല്ല കൊടികളും പിന്നെ പല തരത്തിലുള്ള പൂക്കളും ഒക്കെ ഇങ്ങനെ ഇട്ട് അമ്പലത്തിനെ ഒന്ന് ഒരുക്കി കാണുന്നത് ഒരു സുന്ദരമായ ഒരു സംഭവമാണ് ഒത്തിരി ആൾക്കാർ ഈ ഉത്സവം കാണാൻ വരും ഒത്തിരി കസിനും കസിന്സും പിന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉത്സവ പറമ്പിലൂടെ വരും അപ്പോൾ എനിക്കും ഒരു കൂട്ടുകാർ ഉണ്ടായിരുന്നു എന്റെ ഒന്നിച്ച് ഉത്സവ പറമ്പിലൂടെ നടക്കാന് എനിക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളുടെ കൈയും പിടിച്ച് ഞാന് ഓടുമ്പോൾ എനിക്ക് കൊള്ളാറുണ്ടായിരുന്നു ഞാന് വീണ് കൈ പൊട്ടും എന്റെ കൈമുട്ട് പൊട്ടും കാൽമുട്ട് പൊട്ടും അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ തിന്നാൻ എന്തെങ്കിലും തിന്നാൻ വാങ്ങണമെന്ന് പറഞ്ഞ് വാശിപിടിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സന്ദർഭങ്ങൾ ഉത്സവപ്പറമ്പിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വാശി പിടിച്ചും ഐസ്ക്രീമിന് വേണ്ടി തല്ല് പിടിച്ചും അമ്മേന്റെ ഒന്നിച്ച് ഞാൻ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഉത്സവത്തില് തെയ്യത്തിനെ കാണുമ്പോള് എനിക്ക് ഭയം ഒരു പേടിയായിരുന്നു കാരണം എനിക്ക് വേഷം ഇട്ട അവരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാന് ഉത്സവ പറമ്പില് തെയ്യം കാണാന് അടുത്ത് നിൽക്കാറില്ല ഞാന് ദൂരെ നിന്ന് തെയ്യമൊക്കെ കാണും അപ്പോൾ പൊട്ടുന്ന പടക്കത്തിന്റെ ശബ്ദം അതൊക്കെ ഒരു രസമാണ് പിന്നെ ഞാൻ ആവശ്യം ആവശ്യത്തിനു ഞാൻ എല്ലാ ഉത്സവം ആവശ്യം എല്ലാ ഉത്സവത്തിനും ഞാൻ പോവാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാസര്ഗോഡ് ജില്ലയില് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭരണി മഹോത്സവം പാലക്കുന്ന് ഉദുമേൽ പാലക്കുന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് ഭരണി ഉത്സവം എല്ലാ ജില്ലയില് നിന്നും എല്ലാ ഗ്രാമങ്ങളില് നിന്നും ഓടിയെത്തുന്നവരാണ് കുറേ ആള്ക്കാർ അവിടെ കാലിടാന് പോലും സ്ഥലമില്ലാത്ത സംഭവം വരെ നടന്നിട്ടുണ്ട് കാരണം തിരക്കില് പെട്ട് കുട്ടികളെ കാണാതാവുന്നു പിന്നെ അങ്ങനൊക്കെ അനവധി നിരവധി കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ പലതരം കുട്ടികളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും കുട്ടികളെ ഇതാക്കാനും വേണ്ടി അവിടെ കുറെ കളിപ്പാട്ടങ്ങളും ബലൂണുകളും പിന്നെ ഒരുപാട് ഒരുപാട് പറയാന് പറ്റാത്തത്രയും സംഭവങ്ങള് ഈ ഉത്സവ പറമ്പില് കാണാറുണ്ട് ഒരുപാട് ബലൂണുകളും ഒരുപാട് കളിപ്പാട്ടങ്ങളും പിന്നെ ഒരുപാട് അമ്മയും കുഞ്ഞുങ്ങളും കൈപിടിച്ച് പോകുന്നതും കാണാനും ഉത്സവ പ്പറമ്പില് അതൊക്കെ കാണാന് നല്ല രസമാണ് ബലൂണിനു വേണ്ടിയും ഐസ്ക്രീമിന് വേണ്ടിയും കുട്ടികൾ കരയുന്നതും ഇതൊക്കെ കാണാന് രസമാണ് ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ തെയ്യം ഉത്സവം ഇങ്ങനെ കുറേ കാര്യത്തിന് ഞാൻ പോയിട്ടുണ്ട് കാരണം എന്നെ അമ്മ എല്ലായിടത്തും ഒക്കെ കൊണ്ടു പോകുമായിരുന്നു എല്ലാ പേരുകള് തെയ്യത്തിൻ്റെ പേരുകളും പിന്നെ ഉത്സവം എന്തിനാണ് ഉത്സവം എങ്ങനെയാണ് ഉത്സവം നടത്തുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കഥയായി എന്റെ മുത്തശ്ശിയും അമ്മയും എനിക്ക് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഉത്സവം എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്

പിന്നെ ഇത് ഉത്സവത്തെ പറ്റി പറയുകയാണെങ്കിലും ഉത്സവം എന്ന് പറയുന്നത് ഒരു എല്ലാം ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യരും എല്ലാ കൂട്ടുകാരും എല്ലാവരും ഒത്തു ചേരുന്ന ഒരു സംഭവമാണ് ഉത്സവം എല്ലാവരും ഒത്തു ചേര്ന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് ഉത്സവം തെയ്യക്കോലങ്ങളും പല തരത്തിലുള്ള തെയ്യങ്ങളും പിന്നെ ഓടിപ്പിക്കുന്ന തെയ്യങ്ങളും ഉണ്ട് കുട്ടികളെ ഇങ്ങനെ ഓടിക്കുന്ന തെയ്യങ്ങൾ ഉണ്ട് പിന്നെയും പല തരത്തിലുള്ള വേഷങ്ങൾ ഏറ്റ തെയ്യങ്ങൾ ഉണ്ട് ഓരോ തെയ്യത്തിനെ കാണുമ്പോഴും ഓരോ അനുഭവം ഇപ്പോഴും പറയാനുണ്ട് ഓരോ ഉത്സവങ്ങളും നടത്തിപ്പിക്കുന്നവരെ നമ്മള് കാണാറുണ്ട് അവരെല്ലാം അതിന്റേതായ സംഭവം അതിന്റേതായ രീതിയില് തന്നെ നടത്തിപ്പിക്കാറുണ്ട് പിന്നെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഉത്സവപ്പറമ്പിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് കളിപ്പാട്ടത്തിനു വേണ്ടി ഞാന് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ജീവിതശൈലികളുള്ള ഒരു മനുഷ്യന്മാരെ ഞാന് കണ്ടിട്ടുണ്ട് ഉത്സവ പറമ്പിലൂടെ പിന്നെ നമുക്കാവശ്യമായ സാധനങ്ങള് കമ്മലുകള് മാല കളിപ്പാട്ടങ്ങള് പൊട്ട് ചാന്ത് പൊട്ട് വള മോതിരം എന്നിങ്ങനെയൊക്കെ ഉത്സവ പറമ്പിലാണ് വാങ്ങാറുള്ളത് ഒരു ഒരു കമ്മല് തന്നെ പലതരത്തിലുള്ള സൈസുകളില് വരാറുണ്ട് നമുക്കാവശ്യമായ കമ്മൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കമ്മലുകൾ മാലകൾ പലതരത്തിൽ മുത്തുമാല കല്ലുമാല കമ്മലുകള് ഒക്കെ ഞാന് വാങ്ങാറുണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് കുട്ടിക്കാലത്ത് ഞാന് എനിക്ക് ഒരുപാട് എന്റെ ആഗ്രഹങ്ങള് നിറവേറ്റി തരുന്നത് എന്റെ അമ്മയാണ് എന്റെ അമ്മ പിന്നെ ബന്ധുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ഐസ് ക്രീം പിന്നെ ഡ്രസ്സ് ഒക്കെ ഞങ്ങൾക്ക് വാങ്ങി തരുമായിരുന്നു ഉത്സവ പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായാലും അമ്മ ഒരു കുറച്ചെങ്കിലും പൈസ കൈയ്യിൽ വയ്ക്കണം കാരണം ഞങ്ങൾ എല്ലാത്തിനും കരയുകയായിരുന്നു എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വള എടുക്കും ചാന്തുപൊട്ട് എടുക്കും അതൊക്കെ ഇട്ട് കുട്ടികളെ ഒരുക്കാൻ ഒരു രസമാണ് അതുകൊണ്ട് എനിക്കും അത് വാങ്ങി തരുമായിരുന്നു നല്ല വണ്ണം നല്ല വണ്ണം കളർ ഒക്കെ ഉള്ളതാണ് എനിക്ക് വാങ്ങിത്തരാറുള്ളത് ഞാൻ ഒത്തിരി അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാന് ഇടക്കിടയ്ക്ക് അത് വാങ്ങാറുണ്ട് എനിക്ക് ഇഷ്ടമാണത് ഉത്സവം ഉത്സവത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത് ഒരു എന്റെ കുട്ടിക്കാലം ഞാൻ തെയ്യം കാണാൻ പോയിരുന്നു അവിടെ ഉത്സവം തുടങ്ങി തുടങ്ങിയത് മുതൽ എനിക്ക് തീരുന്നത് വരെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് സ്കൂളിൽ പോയി വന്നിട്ട് ഉത്സവത്തിന് പോവാം സ്കൂള് ലീവാക്കിയിട്ട് ഉത്സവത്തിനു പോകാം പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാം ഒരുപാട് ഐസ് ക്രീമ് തിന്നാം ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങാം ഒരുപാട് ഒരുപാട് ഡ്രസ്സ് കിട്ടും പിന്നെ എല്ലാം ഒന്നിച്ചു അയല്വാസികളില് നിന്നും പിന്നെ ബന്ധുക്കളില് നിന്നും നമുക്ക് ഡ്രസ്സ് കിട്ടും കളിപ്പാട്ടം കിട്ടും ഐസ് ക്രീം കിട്ടും ഇതിനൊക്കെ വേണ്ടിയാണ് ഉത്സവപ്പറമ്പിൽ പോകുന്നത് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉത്സവപ്പറമ്പിലൂടെ കിട്ടിയിട്ടുണ്ട് ആനകളെ കാണും തൊടാൻ പോകും ആനയെ ഒന്ന് തൊട്ടും പിന്നെ കളിപ്പാട്ടങ്ങൾ വാങ്ങും എനിക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടം ഇഷ്ടപ്പെട്ട മാല ഇഷ്ടപ്പെട്ട കമ്മൽ ഇഷ്ടപ്പെട്ട ചന്ദനപ്പൊട്ട് സ്റ്റിക്കര് പിന്നെ നെയിൽ പോളിഷ് ഒക്കെ ഞാൻ ചെറുപ്പത്തിൽ വാങ്ങാറുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ എല്ലാം വാങ്ങുന്നത് തെയ്യമാണ് എപ്പോഴും എല്ലാ വർഷത്തിനും ഒരിക്കൽ നടക്കാറുള്ള ഉത്സവമാണ് പാലക്കുന്ന് ഭരണി പിന്നെ തെയ്യം വീട്ടിനടുത്തുള്ള ഉത്സവപ്പറമ്പില് തെയ്യം നടക്കും പിന്നെ ഒറ്റക്കോലം ഇവിടെ കാസർകോട് ജില്ലയിൽ ഒറ്റക്കോലം എന്ന് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് തെയ്യം കെട്ട് എല്ലാം ഓരോ തറവാട്ടിൽ നടക്കുന്നതാണ് തെയ്യം കെട്ട് എന്ന് പറയുന്നത് ഒരു രണ്ടു മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ് തെയ്യം കെട്ട് കുറേ തെയ്യങ്ങളും തെയ്യങ്ങളും പിന്നെ അതിന്റെ മറക്കളം ഉണ്ടാക്കി അതിനുള്ളില് കളിക്കുന്ന തെയ്യവും ഒരുപാട് തെയ്യങ്ങള് ഞാന് കണ്ടിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ എന്ന് പറയുന്നതും തെയ്യം എന്ന് പറയുന്നതും ഇതൊക്കെ പറയുമ്പോള് എന്റെ ഓര്മ്മയില് വരുന്നതാണ് ഇതൊക്കെ ഒരു ഓര്മ്മയായിട്ടാണ് ഞാനിതിനെ കൊണ്ട് നടക്കുന്നത് ഒരു ബാല്യകാല ഓര്മ്മയാണിത് ഉത്സവം എന്ന് പറയുന്നത്